ഈ പഴയ തലമുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് കൂടുതലായിട്ടും അവരുടേതായ കാര്യങ്ങളിലൂടെയാണ് അവര് കടന്നു പോകുന്നത് അപ്പോൾ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുള്ള ആചാരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ജനറേഷനൊന്നും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കാരണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ രാത്രി നഖം വെട്ടിക്കൂട പിന്നെ രാത്രി പുറത്തിറങ്ങാൻ പാടില്ല ഇപ്പോൾ ആറുമണിക്ക് ശേഷം നമ്മള് എവിടെയും അതൊരു കുട്ടിയെയുംകൊണ്ട് നമ്മള് പുറത്തിറങ്ങാൻ പാടില്ല ആറുമണിക്ക് ശേഷം ചൊവ്വാഴ്ച പോകാൻ പാടില്ല വെള്ളിയാഴ്ച നല്ല ദിവസമല്ല ഇങ്ങനത്തെ പല രീതിയിലുള്ള ആചാരങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടേതായ ഒരു കാര്യങ്ങള് അത് പണ്ടുമുതലേ ഇങ്ങനെ ശീലിച്ചു വന്നിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് അപ്പോൾ അവരത് അവരുടെ മനസ്സില് അടിച്ചേൽപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ പുതിയ തലമുറേനെ അവര് എന്താ പറയുക അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും ഒരു ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഇവര് നടുക്കുള്ള ഒരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടും ഒരു പകുതി പകുതി വെച്ചിട്ടാണെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ അവർക്ക് ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്കത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയില് അവരെ രണ്ടു പേരേയും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എടുക്കുകയാണെങ്കില് അവരുടെ ഒര് വ്യത്യാസങ്ങളും ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് നല്ലൊരു കാര്യമായിട്ട് മാറും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല്